മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്ന് പറയാൻ എന്തെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടുള്ള വാക്ക്കള് അമ്മ അമ്മാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ അമ്മാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് എനിക്ക് എന്നെ എത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് അച്ഛൻ ഉണ്ടെങ്കിലും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് എൻറെ അമ്മ തന്നെയാണ് അച്ഛനേക്കാളും നല്ലോണം അതായത് അച്ഛന് സ്നേഹം ഉണ്ടെങ്കിലും അച്ഛനങ്ങനെ പൈസ കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കൂടുതലും എൻറെ അമ്മതന്നെയാണ് പണിയെടുത്ത് എന്നെ വളർത്തിയതും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മേന അമ്മാന്നുള്ള വാക്കാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് എനിക്ക് മലയാള ഭാഷ സംസാരിക്കാനും ഇതൊക്കെ അങ്ങനത്തെ കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടിയത് എനിക്ക് ചെറുപ്പത്തിലേ എൻറ അമ്മ അച്ചന്റെ അടുത്ത് നിന്നാണ് അവര് തമ്മിലുള്ള ആശയ വിനിമയം കാര്യങ്ങളൊക്ക കേട്ടിട്ടാണ് ഞാനും അതായത് എല്ലാവരെയും പോലെ തന്നെ ഞാനും ഇങ്ങനെ മലയാളം കാര്യങ്ങളൊക്കെ പഠിച്ചത് പിന്നെ അതൊക്കെ എനിക്ക് ഒരു ഉപകാ ഉപകാരമായിരുന്നു പിന്നെ മലയാളം വായിക്കാനും എഴുതാനുമൊക്കെ എന്റെ അച്ഛനും അച്ഛനും അമ്മയും ആണ് എന്ന പഠിപ്പിച്ചത് പിന്നെ നമ്മള് ക്ളാസ്സിലൊക്കെ പോന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടില് എൻറ അച്ഛനും അമ്മയും തന്നെയാണ് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരാളായതിനാൽ എനിക്ക് വളരെ അഭിമാനവും തോന്നുന്നുണ്ട്